വസ്ത്രങ്ങൾ കഴുകാൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വസ്ത്രങ്ങൾ മാത്രം ഞാൻ ഒരു ബക്കറ്റിലിട്ട് വെക്കും ആ ബക്കറ്റിൽ ഞാൻ എന്താ സോപ്പ് പൊടി ഇട്ടു വെക്കും സോപ്പ് പൊടി ഇട്ടതിന് ശേഷം വെള്ളം വെള്ളമൊഴിക്കും എന്നിട്ട് അത് കുറച്ച് സമയം മുക്കി വെക്കും മുക്കി വെച്ച് ഒരു അര മണിക്കൂറിന് ശേഷം ഞാൻ അത് കല്ലിൽ കല്ലു കൊണ്ട് ലൈക്ക് കല്ലിൻ്റെ അവിടെ വെച്ച് അലക്കണ കല്ലിൻ്റെ അവിടെനിന്ന് സോപ്പ് ഉപയോഗിച്ചാണ് ഞാൻ അലക്കുന്നത് സോപ്പ് കൊണ്ട് ഞാൻ കഴുകും കഴുകുക മാത്രമല്ല നല്ലോണം ഉരച്ച് നല്ലോണം അടിച്ചടിച്ചിട്ടാണ് ഞാൻ അലക്കുന്നത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ട് ബക്കറ്റ് വെള്ളം ഞാൻ നേരത്തെ എടുത്ത് വെച്ച വെള്ളമുണ്ടാവും അതിൽ ഒന്നില് മുക്കി സോപ്പൊക്കെ പൊക്കി വൃത്തിയാക്കും എന്നിട്ട് മറ്റേതിൽ ഒന്നൂടെ മുക്കി നല്ലോണം ക്ളീനാക്കീട്ട് പിഴിഞ്ഞ് വേറൊരു ബക്കറ്റിലേക്ക് മാറ്റും സാധാരണ ഞാൻ അങ്ങനെയാണ് കഴുകാൻ ചെയ്യുന്നത് വ്യത്യസ്ത കാലാവസ്ഥകളെന്ന് വെച്ചാൽ ഒന്ന് ചൂട് കാലം തണുപ്പ് കാലം മഴക്കാലം അങ്ങനെ മൂന്ന് തരത്തിലുള്ള അവസ്ഥയാ ഉള്ളത് ചൂട് കാലത്ത് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കലക്കാം എന്തോ ചെയ്യാം കാരണം അത് വേഗം ഉണങ്ങിക്കോളും വായു ഉള്ള സ്ഥലത്ത് ആറി ഇട്ടാൽ മതി അത് മണം വരാതിരിക്കാനാണ് രാവിലെ അലക്കുന്നത് എത്രയോ നല്ലത് കാരണം രാവിലെ അലക്കിയാൽ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടാവും ആ സമയത്ത് വേഗം ഉണങ്ങിക്കോളും പിന്നെയൊന്നുള്ളത് മഴക്കാലമാണ് മഴക്കാലത്ത് വളരേ ബുദ്ധിമുട്ടാണ് ഉണങ്ങാൻ അതുകൊണ്ട് മഴ ഇല്ലാതെ സമയം നോക്കി കണ്ടുപിടിച്ച് ആ സമയത്ത് അലക്കി അത് വായു ഉള്ള സ്ഥലത്ത് മാത്രം ആറി ഇടാം എല്ലാം ഒപ്പരം കൂട്ടി ആറി ഇടാനും പാടില്ല പിന്നെയെന്ന് വെച്ചാൽ അത് ഫാനിൻ്റെ താഴെയോ അങ്ങനെയൊക്കെ വെക്കുന്നതും നല്ലതാണ് പിന്നെ തണുപ്പ് നമുക്ക് ഏതു സമയത്തും അലക്കാം പക്ഷേ വേഗം ഉണങ്ങണം ഉണങ്ങണം എന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ അലക്കുന്നതാരിക്കും കൂടുതൽ നല്ലത് രാവിലെ അലക്കിയാൽ ഉച്ചയൊക്കെയാകുമ്പോൾ കുറച്ച് വെയിൽ കിട്ടും ആ സമയത്ത് അലക്കി ഇട്ടാൽ നല്ലതായിരിക്കും വേറെ വെള്ളം പാഴാക്കുന്നത് ഞാൻ അങ്ങനെ അധികം വെള്ളത്തിലൊന്നും അലക്കാറില്ല ആവിശ്യത്തിന് മാത്രം രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം വെള്ളത്തിനെക്കൊണ്ട് മാത്രമാണ് അലക്കാറുള്ളത് അത് ഞാൻ ഉറപ്പായി കഴിഞ്ഞാൽ ഞാനിനി ആദ്യം തന്നെ നാലഞ്ച് ബക്കറ്റിൽ വെള്ളം എടുത്ത് വെക്കും അതിനു ശേഷം ആ ബക്കറ്റിൽ വെള്ളം തീരുന്നത് വരെ മാത്രമേ അലക്കുന്നുള്ളൂ അങ്ങനെ ഞാൻ ഉറപ്പാക്കാം